ഇന്ന് ബാങ്കിങ് ശൃംഖല രാജ്യത്തിന്റെ ഉടനീളം വ്യാപിച്ചിരിയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ രീതിയിൽ നിന്നും തുടങ്ങി ഗവൺമെന്റ് ബാങ്ക്കൾ തുടങ്ങി ധാരാളം പ്രൈവറ്റ് ബാങ്ക്കൾ രാജ്യത്തിന്റെ ഉടനീളം വ്യാപിച്ച് കിടക്കുന്നു ആദ്യകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് എസ് ബി എസ് ബീ റ്റി പോലുള്ള ബാങ്കുകളായിരുന്നു പിന്നീട് പല തരത്തിലുള്ള പ്രൈവറ്റും അല്ലാത്തതുമായിട്ടുള്ള നിരവധി ബാങ്ക്കൾ ഇപ്പം ഫോറിൻ ബാങ്ക്കളായാലും ഇപ്പം നമ്മുടെ രാജ്യത്തിൽ പ്രവർത്തിയ്ക്കുന്നുണ്ട് കാലം മാറുന്നതനുസരിച്ച് ബാങ്കിങ് ശൃംഖലകളിൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ നമുക്ക് ബാങ്കിൽന്ന് പണം പിൻവലിയ്ക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് രെജിസ്റ്ററ് ചെയ്തിട്ടുള്ള ബാങ്കിൽ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എ റ്റീ എം മിഷിന്കൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാജ്യത്തിലെ എവിടെ നിന്നും ഒരേറ്റിഎം കാഡുപയോഗിച്ച് പണം പിൻവലിയ്ക്കാം കഴിയും അപ്പം അത് ബാങ്കിങ് മേഖലകളിൽ തന്നെ ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണെന്ന് പറയാം ഇനി ബാങ്ക്ൽ ബുക്ക് നമ്മൾ പാസ് പാസ് ബുക്ക്കൾ പതിയ്ക്കണോങ്കിൽ തന്നെ ഇപ്പോൾ ഒരു മിഷ്യൻ ഉണ്ട് അതുപയോഗിച്ച് നമുക്ക് പതിച്ചെടുക്കാം മുൻപത്തെ പോലെ നമുക്ക് നമ്മളോരോ കൗണ്ടറിലും പോയി വെയിറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് കൊടുത്ത് നമുക്ക് ആ മെഷ്യൻ ഉപയോഗിച്ച് നേരിട്ട് പതിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പണം നിക്ഷേപിയ്ക്കണമെങ്കിൽ മുൻപ് അതാത് ബാങ്ക്കൾൽ പോണമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ആവശ്യമില്ല ഇതും നമുക്ക് ഏ റ്റി എം മെഷ്യൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടില് പണം നിക്ഷേപിയ്ക്കാനും കഴിയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഏ റ്റി എം കാടുപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്കള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്താനും മറ്റും നമുക്ക് കഴിയുന്നുണ്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങും നടത്താനും നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ബാങ്കിങ് മേഖലയിലെ ഈ മാറ്റങ്ങൾ ആദ്യകാലങ്ങളിൽ നമുക്ക് പരിവർത്തനങ്ങൾ ആദ്യകാലങ്ങളിൽ പൊരുത്തപ്പെട്ടുവരാൻ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും ഏറ്റിഎം ഉപയോഗിയ്ക്കാൻ അറിയണമെന്ന് ഉണ്ടാവില്ല അപ്പം സമയം മാറുന്നതിനനുസരിച്ച് ആളുകൾ ആ പുതിയ പുതിയ മാറ്റങ്ങളുമായിട്ട് ഇടപഴകി വരുകയാണ് അപ്പോൾ ബുദ്ധിമുട്ട്കളായിട്ട് മാറ്റ് അതായത് ഏത് പരിവർത്തനം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് മനുഷ്യന്റെ ഇത് നമ്മുടെ എഫ്ഫ്ഓട്ടു അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയായിരിയ്ക്കും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിയ്ക്കുക അപ്പം ഈ ഏ റ്റി എം പോലുള്ള ഇത് കൊണ്ടുവന്നതിന്ന് വെച്ച നമ്മുടെ നമ്മുടെ സമയം സമയം ലാഭിയ്ക്കാൻ വേണ്ടി അല്ലെ അപ്പോൾ ബാങ്ക്കളിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് വെയ്റ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ആദ്യം ടെക്നോളജിയ്ക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്കാദ്യം അക്സപ്റ്റ് ചെയ്യാനൊന്നല്ല ബുദ്ധിമുട്ടായിരിയ്ക്കും പലർക്കും അതിനേ ക്കുറിച്ച് അറിവുണ്ടാകില്ല പക്ഷേ സമയം മാറുന്നതിനനുസരിച്ച് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതുവഴി നമുക്ക് അത് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ബാങ്കിങ് മേഘലയിലുണ്ടായിരുന്ന എല്ലാ പരിവർത്തനോം നമ്മുടെ ബാങ്കിങ് മേഖലയിലെ ട്രാൻസ്പ്പാരൻസി വർദ്ധിപ്പിയ്ക്കും സുതാര്യമാക്കും മേഖല സുതാര്യമാകേം അത് വഴി നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുവേം ചെയ്യും